മനുഷ്യൻ്റെ ജീവന് ഭീഷണിയുള്ള ഇഴജെന്തുക്കളാണ് പാമ്പ്കൾ അതുപോലെ തന്നെ കൊതുകുകൾ കടന്നലുകൾ ഈച്ചകൾ എന്നിവയുടെ കുത്തേറ്റാലും ചിലപ്പോൾ ജീവന് ഭീഷണിയും മറ്റ് രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയിൽ നിന്ന് രക്ഷ നേടാൻ പ്രാഥമികായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ പാമ്പുകൾ സാധാരണ ആയി ഉണ്ടാവാറുള്ളത് മാളങ്ങളിലാണ് അപ്പം വീടിന് പരിസരത്തും പറമ്പിലും ഉള്ള മാളങ്ങൾ എപ്പോഴും പരിശോധിച്ച് അടച്ച് ഇടേണ്ടതും ഇടേണ്ടതാണ് അതുപോലെ കടന്നലുകൾ പലപ്പോഴും പരിസരങ്ങളിൽ കൂട് കൂട്ടാറുണ്ട് ഇതിനെ ഇവയെ കണ്ടെത്തിയത് പിന്നെ നശിപ്പിച്ച് കളയുക കളയേണ്ടതാവശ്യമാണ് അതുപോലെ കൊതുക് ഇൻ്റെ വളർത്ത് കേന്ദ്രങ്ങളായ ജലം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇതെല്ലാം ഇവയിൽ നിന്ന് സുരക്ഷിതമായി ഇരിക്കാൻ സ്വീകരിക്കാവുന്ന ചില മാർഗ്ഗങ്ങളാണ് അത്തരം ജീവികളുടെ ഉപദ്രവങ്ങൾ നമ്മൾ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിന് ശേഷം ചികിത്സ തേടുന്നതിനെക്കാളേറെ ആയിരിക്കും നന്നാവുക